കഴിവുകളെന്നു പറയാൻ ഫോട്ടോഗ്രാഫി അതുപോലെ ഫോട്ടോ എഡിറ്റിങ് ഇത് വികസിപ്പിച്ചെടുക്കുക പറഞ്ഞാൽ ഫോട്ടോഗ്രാഫി അവിടെ ചെയ്യുന്ന ചേട്ടനുണ്ട് അപ്പോൾ ചേട്ടൻ ചെയ്യുന്നത് കണ്ടു പഠിച്ച് ചെറുതായി പഠിച്ച് പിന്നെ നമ്മൾ മൊബൈലുപയോഗിച്ചുതന്നെ നല്ലപോലെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കും ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ മൊബൈലുകളിലും മൂന്നാലു ക്യാമറ ഉണ്ട് അപ്പോൾ ഈ മൂന്നാലു ക്യാമറകളെയും പക്കയായി വർക്ക് ചെയ്യിപ്പിച്ച് നല്ല റിസൾട്ട് കിട്ടാൻ നോക്കും മാക്സിമം ക്രീയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ ഇല്ലെങ്കിൽ നല്ല ഫോക്കസ്ഡ് ആയിട്ട് നല്ല രീതിക്കുള്ള ഫോട്ടോ എടുക്കുന്നു അത് പിന്നെ എഡിറ്റിംഗ് എഡിറ്റിംഗ് വർക്ക് ചെയ്ത് അതിലും മികച്ചതാക്കാൻ നോക്കുന്നു എഡിറ്റിംഗ് ഞാൻ തന്നെ സ്വയം പഠിച്ചതാണ് ഓരോന്ന് ചെയ്തു നോക്കി ചെയ്തു നോക്കി ചിലപ്പോൾ തെറ്റു പറ്റും അതിന്നു ശരിയാക്കും പിന്നേയും തെറ്റുപറ്റും ശരിയാക്കും അങ്ങനെ ശരിയാക്കി ശരിയാക്കി ഇപ്പോൾ നല്ലപോലെ എഡിറ്റ് ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട് ഒരു ഫോട്ടോ തന്നു വെച്ചാൽ അത് തന്ന ക്ലെയ്ൻ്റ് ഇല്ലെങ്കിൽ തന്ന വ്യക്തിക്കത് കാണുമ്പോൾ നന്നായിട്ടുണ്ട് എന്നാൽ ഒരു ബോറില്ലാതെ എഡിറ്റ് ചെയ്യാനും അത് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാനും സാധിക്കുന്നുണ്ട് അതുപോലെതന്നെ ഇപ്പോൾ ഒരാൾ ഫോട്ടോ എടുക്കാനും വിളിച്ചാലും നല്ലതുപോലെ ഫോട്ടോ എടുത്തു കൊടുക്കാനും സാധിക്കും ഇതെല്ലം സ്വയമായിട്ട് പഠിച്ചിരുന്നതാണ് ഫോട്ടോഗ്രാഫി പഠിച്ചത് ചേട്ടൻ്റെ ചേട്ടൻ പറഞ്ഞുതരും അതിനെക്കുറിച്ച് കുറച്ച് ചേട്ടൻ പറഞ്ഞു തരും ബാക്കി എല്ലാം നമ്മൾ ഫോണിൽത്തന്നെ ചെയ്ത് പഠിച്ചതാണ് എഡിറ്റിംഗ് സ്വയമായി പഠിച്ചതാണ് ഇതൊക്കെയാണ് കഴിവ് പറയാനുള്ളത് പിന്നെ എഡിറ്റിംഗ് എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് അല്ലാതെ വീഡിയോ എഡിറ്റിംഗ് ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ ഇടുന്ന സ്റ്റാറ്റസ് വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം എഡിറ്റിംഗും ചെയ്യാറുണ്ട് അതെല്ലാം സ്വയം പഠിച്ചതാണ് അതിനനുസരിച്ചുള്ള ഇപ്പോൾ ഒരു സോങ്ങിനനുസരിച്ചുള്ള വീഡിയോ ക്ലിപ്പുകൾ അതുപോലെ വീഡിയോ എല്ലാം എല്ലാം വർക്ക് ചെയ്യണതെല്ലാം ഇതാണ് അപ്പോൾ അതെല്ലാം അങ്ങനെ പഠിച്ചതാണ്